ഹലോ ടെന്നീസ് സ്റ്റോഴ്സ് അല്ലേ ഞാൻ ഒരു ഫുഡ്ഡിൻ്റെ ഇന്നലെ മേടിച്ച ഫുഡ്ഡിൻ്റെ ഒരു കംപ്ലൈന്റ്റ് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നേ ഇന്നലെ അവിടുന്ന് മേടിച്ച ആ പൊറോട്ടയും ബീഫും ഒന്നും കൊള്ളത്തില്ലായിരുന്നു ഭയങ്കരം ഉപ്പായിരുന്നു ഒന്നു വായിൽ വെയ്ക്കാനേ കൊള്ളത്തില്ലായിരുന്നു പക്ഷെ ഇന്നലെ ഞങ്ങൾ മേടിച്ച ഫുഡ്ഡ് ഭയങ്കരം മോശമായിരുന്നു ഞങ്ങൾ നിങ്ങളിൽ നിന്നങ്ങനെ അങ്ങനെ പ്രതീക്ഷിച്ചില്ല ഞങ്ങളെപ്പോഴും നിങ്ങളുടെ ഹോട്ടലിൽനിന്ന് തന്നെയാണ് മേടിക്കുന്നത് പക്ഷേ ഇന്നലെ വളരെ മോശമായ ഒരു അനുഭവമായിരുന്നു ഉണ്ടായിട്ട് അല്ല അങ്ങനെ ഉണ്ടായല്ലോ അതുകൊണ്ടല്ലേ നിങ്ങളെ വിളിച്ച് പറഞ്ഞത് ആ പൊറോട്ട നല്ലപോലെ കുക്കായില്ലായിരുന്നു ബീഫിനാണെങ്കിൽ ഇച്ചിരി എരിവ് കൂടുതലായിരുന്നു ഉപ്പും കൂടുതലായിരുന്നു വളരെ മോശമായിരുന്നു ഇന്നലെ അപ്പം അവിടുന്ന് ഫുഡ്ഡ് മേടിച്ച ആരും നിങ്ങളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ ഓക്കേ അപ്പം പക്ഷേ ഫുഡ്ഡ് ഭയങ്കരം മോശമായിരുന്നു അല്ല നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ ഹോട്ടലിനെ വിളിച്ച് മോശം പറയേണ്ട ആവശ്യം ഒന്നും ഞങ്ങൾക്കില്ല അപ്പം ആ ഫുഡ്ഡ് ഭയങ്കര മോശം ആയതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഓക്കെ പക്ഷേ എന്നാലും നിങ്ങളുടെ ഭാഗത്തുനിന്നുമൊരു സോറി അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചു ഇന്നലെ രാത്രി ഞങ്ങളത്ര താമസിച്ച് വന്ന് മേടിച്ചതുകൊണ്ടായിരിക്കാം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനിയും ഇങ്ങനെയൊരനുഭവം ഉണ്ടാവത്തില്ല എന്നും ഞങ്ങൾ വിചാരിക്കുന്നു ഓക്കെ ആ വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയും നിങ്ങൾ നന്നായിട്ട് കൊണ്ടുപോയാൽ മതി ഓക്കെ